ഹലോ എനിക്ക് ഒരു കാർ വേണമായിരുന്നു ആ അപ്പോൾ എനിക്ക് അവിടെ നല്ലൊരു കാർ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാർ ആണ് എനിക്ക് ഉദ്ദേ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ കുടുംബത്തിനും ആ ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പ് ആ നയൻ ലാക്സ് ഒക്കെ കുഴപ്പമില്ല ആ ഐ ട്വൻറ്റി അല്ലേ പക്ഷേ അതിന്റെ ഒരു ഷേപ്പ് എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല വേറെ ഏതെങ്കിലും വണ്ടി ഉണ്ടോ ആ എന്നാൽ അതെനിക്ക് വലിയ ഒരു താല്പര്യം ഇല്ല ഒരു ഒരു ആ ആ ക്രെറ്റ അയി അതിനെത്ര റേറ്റ് വരും ഇരുപത്തിനാല് അല്ലേ അത് ലേശം കൂടുതൽ ഇപ്പോൾ നമുക്ക് ലോ ഓപ്ഷൻ മതി അപ്പോൾ അതാണെങ്കിൽ ആ അതിന് അതിനൊക്കെ എത്രയാണ് ഇത് വരുന്നത് അതിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് വരുന്നത് രണ്ടെണ്ണം ഉണ്ടാവുള്ളൂ അല്ലേ ആ ഓക്കെ ഓക്കെ അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയേ ഉള്ളൂ ഓക്കെ അലൈവികൽ അല അലോയിയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ ടൈപ്പേ വരുള്ളൂ അപ്പം നിങ്ങൾ തന്നെ അലോയി ഒക്കെ പ്രൊവൈഡ് ചെയ്യുമോ അതോ നിങ്ങൾ ആ അത്രയും വരുമല്ലേ അങ്ങനെയാണെങ്കിൽ നാളെ വന്നാൽ എനിക്കൊന്ന് വണ്ടി കാണാൻ പറ്റുമോ മ് ആ ഏതൊക്കെ കളർ ആണ് ഇപ്പോൾ അതിന് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലാക്കിന് അല്ലേ ഓക്കെ വണ്ടി ബുക്ക് ചെയ്താൽ എപ്പോഴാണ് കിട്ടുക ഓക്കെ ഓക്കെ ആ ബ്ലാക്ക് അല്ലേ നമ്മൾ എത്രയാണ് എത്രയാണ് വരുന്നത് ആ അപ്പോൾ ഏകദേശം എത്ര വേണ്ടി വരും കൊടുക്കേണ്ടി വരും അല്ലേ ഓക്കെ ഓക്കെ അത് എങ്ങനെയാണ് നിങ്ങൾ ആദ്യം തന്നെ അടയ്ക്കണോ അതോ വണ്ടി വന്നതിന് ശേഷം മാത്രം ആണോ അടയ്ക്കേണ്ടത് എങ്ങനെയാണ് ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്നാൽ നാളെ പൈസ എടുത്തിട്ട് വരാം എന്തായാലും ഓക്കെ എന്നാൽ ഞാൻ അവിടെ വന്നിട്ട് എല്ലാ പേപ്പറും ക്ലിയർ ചെയ്യാം അല്ലേ

ഓക്കെ എന്നാൽ